നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും സിനിമ കാണാനാണ് കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് കാരണം ഈ ടെലിവിഷനിൽ കൂടുതലും സീരിയല് കാര്യങ്ങളൊക്കെയായത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സിനിമ അങ്ങനത്തെ എൻ്റർടൈൻമെന്റ് പരിപാടികളാണ് കാണാനിഷ്ടം ചില സിനിമകൾ കാണുമ്പോൾ നമ്മുടെ ജീവിതം പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പം കൂടുതലും സിനിമയിലേക്കാണ് എല്ലാവരും പോകുന്നത് കാരണം അതിനകത്താണ് പൈസ കൂടുതൽ കിട്ടുകയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിലേക്ക് പോകാനാണ് എല്ലാവർക്കും താത്പര്യം റേഡിയോയൊക്കെ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം ടെലിവിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് റേഡിയോ ഇല്ല പിന്നെ എല്ലാം ഡിജിറ്റൽ രൂപമായത് കൊണ്ട് നമുക്കെല്ലാം മൊബൈൽ ഫോണിലൂടെ കാണാം ഇപ്പം ടെലിവിഷൻ തന്നെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മൊബൈൽ ഫോണുണ്ടെങ്കിൽ എല്ലാം എ ടു സെഡ് കാര്യങ്ങളും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ എല്ലാം നടക്കും അപ്പം ഇപ്പം സിനിമ തന്നെ നമുക്ക് തിയേറ്ററിൽ പോയി കാണണമെന്നൊന്നൂല്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ തന്നെ കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കൂടുതലാണ് ഇന്റർനെറ്റ് വഴിയെല്ലാം പെട്ടന്ന് പെട്ടന്ന് നമ്മുടെ കൈകളിലേക്കെത്തുന്നുണ്ട് ആദ്യമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡിയിലിറങ്ങി സി ഡി നമ്മൾ വാങ്ങിയൊക്കെ കാണണം ഇപ്പം അങ്ങനയൊന്നുമില്ല ഇപ്പം നമുക്ക് നേരെ നെറ്റ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ കാണാനുള്ള അവസരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്